പ്രമേഹരോഗമെന്ന് പറയുമ്പം മനുഷ്യർക്ക് എല്ലാവർക്കും വലിയ ഒരു പേടിയും എല്ലാ ഉള്ള ഒരു രോഗമാണ് പ്രമേഹ രോഗം പ്രമേഹരോഗം നമുക്ക് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല നമ്മൾ അരി ആഹാരം മധുരം പഴവർഗങ്ങൾ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്നു ശ്രദ്ധിക്കുക പ്രമേഹത്തിന് മരുന്ന് കഴിക്കേണ്ട ആവിശ്യം ഇല്ലെന്ന് എല്ലാവരും പറയും പക്ഷേ പ്രമേഹത്തിന് മരുന്ന് കഴിക്കണം മരുന്ന് കഴിക്കുന്നു എന്ന് പറയുമ്പം പച്ച മരുന്നുകൾ പല യൂട്യൂബ് വഴിയും അല്ലാതെ നാട്ട് വൈദ്യൻ അങ്ങനെയൊക്കെ

പിന്നെ ഡോക്ടറ് നിർദ്ദേശിക്കാത്ത ഒരു മരുന്നും നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുക അങ്ങനെ ചെയ്താൽ നന്നേ രോഗം പിടിക്കും പിന്നെ ഈ പ്രമേഹ രോഗികൾ പ്രമേഹരോഗികൾ രാവിലെ അര മണിക്കൂർ നടക്കുന്നത് നല്ലതാണ് പ്രമേഹം ഉള്ളവർ ധാരാളം വെള്ളം കുടിക്കണം പിന്നെ പ്രമേഹ രോഗം ഉള്ളവർ ഇങ്ങനെ മുറിയോ മുറിയുക ഒക്കെ ചെയ്താൽ അത് പിന്നെ പഴുത്ത് പിന്നെ വലിയ വൃണമായി ഈ കരിയാതെ വരും അങ്ങനെയാണ് കൈയ്യും കാലും ഒക്കെ മുറിക്കാനും ഒക്കെ ഇട വരുത്തുന്നത് അത് നമ്മടെ പത്യത്തിൽ പത്യത്തിൽ കൂടി നമുക്ക് അത് മാറ്റിയെടുക്കാം നമ്മൾ അത് സാധിച്ചാൽ ഡോക്ടർമാർ പറയുന്ന പത്യവും ഒക്കെ നോക്കി സത്യമായിട്ട് മരുന്നും കഴിച്ചാൽ അത് ഇത്തി പേടിക്കേണ്ടേതായ കാര്യങ്ങളുള്ള കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് പ്രമേഹ രോഗികൾ അങ്ങനെ ഒത്തിരി പേടിച്ചു വിറച്ചു കഴിയേണ്ട കാര്യമില്ല നമ്മൾ പിന്നെ കപ്പ ചേമ്പ് ചേന കാച്ചിൽ ചോറ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറയ്ക്കുക അങ്ങനെ ആഹാരങ്ങളെല്ലാം കുറച്ചു കഴിയുമ്പം നമുക്കും രോഗവും കുറഞ്ഞു കുറയും പിന്നെ ഡോക്ടർ പറയുന്ന മരുന്നല്ലാതെ നമ്മൾ വേറെ ഒരു മരുന്നും കഴിക്കാതെ തന്നത്താൻ ഉണ്ടാക്കിയ ഒരു മരുന്നും രോഗികൾ കഴിക്കാൻ പാടില്ല

അങ്ങനെ ഒരു ടെൻഷൻ എടുത്ത് ബി പി കൂട്ടേണ്ട കാര്യമൊന്നും ഇല്ല നമുക്ക് നമുക്ക് മരുന്നും ആഹാരവും കൊണ്ട് നമുക്ക് അതൊക്കെ നേരിടാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ അങ്ങനെ നോക്കി പേടിച്ചിരിക്കേണ്ട കാര്യം ഇല്ല കൃത്യമായിട്ട് മരുന്നും കഴിച്ചു ഡോക്ടേഴ്സ് നിർദ്ദേശിച്ച ആഹാരവും കഴിച്ചു നമ്മുടെ വ്യായാമം ഇതിൽ നിന്നും നമുക്ക് പ്രമേഹത്തെ ചെറുത്തു നിൽക്കാൻ കഴിയും